കേരളത്തിൽ അതിൻറ്റേതായിട്ടുള്ള ഒരു പൈതൃകം ഉണ്ട് അതായത് നമ്മുടെ വസ്ത്രധാരണമാണെങ്കിലും താമസമാണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ രീതിയാണെന്ന് ഉണ്ടെങ്കിലും നമ്മുടെ കലാകായിക മേഖലയാണെന്നുണ്ടെങ്കിലും അതിന് അതിൻറ്റേതായിട്ടുള്ള ഒരു പൈതൃകം ഉണ്ട് ഇപ്പോൾ വസ്ത്രധാരണ കാര്യങ്ങൾ എടുത്താൽ തന്നെ നമുക്കറിയാം പണ്ടത്തെ രീതിയിലല്ല ഇപ്പോൾ ഉള്ള വസ്ത്രധാരണ രീതി പണ്ട് വളരെ പാരമ്പര്യ രീതീലാണ് ആൾക്കാർ വസ്ത്രങ്ങൾ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർ വസ്ത്രധാരണ രീതി മാറി അത് അതിൽ കൂടുതലായിട്ട് പുറത്ത് നിന്നുള്ള സ്വാധീനം വന്നിട്ടുണ്ട് അപ്പോൾ അതിലും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ താമസത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ കൂട്ട് കുടുംബ രീതിയായിരുന്നു അതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊട്ടിട്ട് അതിലും കുറേശ്ശെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ടായിരം എത്തിയതോടുകൂടി അതും കൂട്ട് കുടുബങ്ങളെന്ന് ഉള്ള ആ ഒരു രീതി മാറിയിട്ട് അതൊരു അണുകുടുംബം രീതിയിലേക്ക് ഓരോരുത്തരും നാട്ടിൽ താമസിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവർ കുറവാണ് എല്ലാവരും ഒരു വീടെടുത്ത് വീട് ഉണ്ടാക്കിട്ടിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണിപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് അതിൽ തന്നെ ഇപ്പം നാട്ടിൽ വീട് ഉണ്ടെങ്കിൽ അവിടൊരു പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് താമസം അതിന് നമ്മുടെ നാട്ടിലുള്ള തൊഴിലവസരങ്ങൾ കുറയുന്നത് അതിനൊരു കാരണമാണ് അതേ പോലെ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞ് കഴി പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ ട്രഡീഷനലായിട്ട് ഉള്ള കലാരൂപങ്ങൾ ഉണ്ട് നമുക്ക് നമ്മുടെതായിട്ട് ഉള്ള കലാരൂപങ്ങൾ ഉണ്ട് എക്സാംബിള് പറയുവാണെങ്കിൽ മോഹിനിയാട്ടം ഒരു കലാരൂപമാണ് അതേ പോലെ മാപ്പിളകലകൾ അതൊക്കെ കേരളത്തിൻ്റെ മാത്രമായിട്ട് ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ യുവജനോത്സവ വേദികളിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ഒതുങ്ങിയിട്ടുള്ളത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരാസ്വാദന വേദി വളരെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നം നമ്മുടേതായ കലാരൂപങ്ങൾ ആസ്വദിക്കുന്നത് എപ്പോഴും യുവജനോത്സവ വേദികളിലൂടെ മാത്രമാണ് അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗാനമേള വെക്കുന്നതിന് പകരം ഇതേ പോലെ പരമ്പരാഗത കലാരൂപങ്ങൾ വെക്കാന്ന് പറയണത് അസാധ്യാണ് അങ്ങനെ ആരും അത് സെലക്ട് ചെയ്യാറില്ല